ഹലോ ആ ഹലോ ഗ്രീൻ ഹിൽസ് പബ്ലിക് സ്കൂളായിരുന്നു ആ ഏതൊക്കെ ക്ലാസ്സിലായിരുന്നു രണ്ടാം ക്ലാസ്സിലാണോ അതെന്താ ഇത്ര വൈകിയത് ചേർക്കാൻ വേണ്ടീട്ട് ഇപ്പോൾ ക്ലാസ് തുടങ്ങീട്ട് ഒരു മാസത്തിന് മേൽ എളയ ആൾ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ അപ്പോൾ നിങ്ങളെന്തിയ നാളെ ഇത് ഏതേലും പ്രൂഫൊക്കെ ആയിട്ട് വരുക ഇപ്പോൾ എൽ കെ ജി പഠിക്കുന്ന കുട്ടിക്ക് വേറൊന്നും വേണ്ട നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് മാത്രം മതി പിന്നൊരു ആധാർ കാർഡും അധാർ കാർഡെടുത്തില്ലേ കുട്ടിക്ക് ആ പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫീസ് കാര്യങ്ങളൊക്കെ വരുന്നത് എൽ കെ ജി പഠിക്കുന്ന കുട്ടിക്ക് അൻപതിനായിരം രൂപയാണ് ഫീസ് വരുക ആ ഇപ്പോൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കാണെങ്കിൽ ഒരു ലക്ഷം രൂപ ഫീസ് വരുന്നത് പിന്നെ നമ്മുടെ പി ടി എ ഫണ്ട് കാര്യങ്ങളൊക്കെ ആ അഡിഷണൽ തരണം നമുക്ക് തരണം ആ അഡിഷണൽ ആണ് പിന്നെ വേറെന്തെങ്കിലും നിങ്ങൾക്കറിയാൻ ഉണ്ടോ സ്കൂൾ ബസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിന് നമുക്ക് അഡിഷണല് പേ ചെയ്യണം അഡിഷണൽ പൈസ ആണ് അപ്പം നമ്മൾ ഒരു ദിവസം ഒരു മാസം ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ച് വരും എവിടെ നിങ്ങടെ ദൂരം അനുസരിച്ചിരിക്കും നിങ്ങളിപ്പോൾ എവിടെ സ്ഥലം എവിടെയായിരുന്നു കാട്ടിക്കുളാണ് ആ അപ്പോൾ അവിടേക്കുള്ള ദൂരത്തിനനുസരിച്ച് ഇരിക്കും റേറ്റ് കാര്യങ്ങളൊക്കെ വരുക ആയിരത്തഞ്ഞൂറു ആ റേഞ്ച് അതിന്റുള്ളിൽ വരുള്ളൂ ആ അപ്പോൾ ആ നാളെ വന്നുകഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കാം ആ പിന്നെ യൂണിഫോമ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് നിങ്ങൾ അഡിഷണൽ പേ ചെയ്ത് കഴിഞ്ഞാൽ യൂണിഫോമ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ റെഡി ആക്കിത്തരും പിന്നെ ആ ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ബുക്കിനൊക്കെ അഡിഷണൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം

അത് നമ്മൾ സ്കൂളിൻ്റെ അതായത് നമ്മൾ അവർ സ്കൂളിൽ ബെഞ്ചിൽ അങ്ങനത്തെയൊക്കെ ഇരിക്കൂലേ അത് നമ്മുടെ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇതാണ് അപ്പോൾ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല ആ അവർ ഇടുന്ന ഒരു റേറ്റാണത് അപ്പോൾ ചെയ്യാൻ പറ്റില്ല ആ ഭയങ്കര പ്രശ്നമാവും ആ ഇത് ഒരു പ്രൈവറ്റ് സ്ക്കൂൾ അല്ലേ അപ്പം ഗവൺമെൻറ്റിലൊക്കെ ആണെങ്കിൽ പിന്നെ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അപ്പോൾ ഇംഗ്ലീഷിന് അവർക്ക് അവർ അത്യാവശ്യം നല്ല രീതിയിൽ പഠിപ്പിക്കും കാര്യങ്ങൾ അപ്പോൾ ടീച്ചർമാർക്കൊക്കെ ഫീസും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ ആ അതിനൊക്കെ വേണ്ടീട്ടാണ് നിങ്ങൾ നാളെ പോന്നോളൂ നാളെ പേപ്പറ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോന്നോളൂ ഓ ഓക്കെ ഓക്കെ